എൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഈശോ ആണ് ഞാൻ ഈശോയെ ഒത്തിരി അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഈശോയെ കുറിച്ച് ഞാൻ അറിയുന്നത് വചനം വായിക്കുവാനും ബൈബിൾ വായിച്ചും അതുപോലെ തന്നെ മത പഠനമായ ക്ലാസ്സുകളിലൂടെ പങ്കെടുത്തും ഈശോയെ ഞാൻ കൂടുതലായിട്ടും അറിഞ്ഞു കൊണ്ടിരിക്കുന്നു ഈശോയെ അറിയും തോറും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനും ഈശോയോട് ചേർന്ന് ജീവിക്കാനുമൊക്കെയുള്ള ആഗ്രഹമാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പം അവിടുത്തെ പഠനങ്ങൾ അത് ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോഴും ഈശോയെ കുറിച്ചുള്ള അറിവ് അത് പുതിയത് പുതിയതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പുതിയതായിട്ട് ഈശോയെ കണ്ടെത്തുവാനും ഈശോയുടെ അടുത്ത് സ്നേഹിക്കുവാനും ഈശോയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അത് സാധ്യമാവുന്നുണ്ട് ഒത്തിരി അധികം വിഷമിച്ചുമൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോ പറഞ്ഞ ഓരോ വചനങ്ങളും വാക്കുകളുമൊക്കെ ഒത്തിരി ആശ്വാസമാവാറുണ്ട് നമ്മുടെ അടുക്കൽ വരുന്നവരുടെ അടുക്കലും അതൊക്കെ തിരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം ഈ വെറും മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിലെ ചരിത്രത്തിന് തന്നെ ആ ഒരു മാറ്റമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയെ കുറിച്ച് പഠിക്കുവാനും നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒത്തിരി അധികം സാധ്യമാവുന്നുണ്ട് ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് സോഷ്യൽ മീഡിയ ഒത്തിരി അധികമായിട്ട് പ്രബലമായ സാഹചര്യത്തിൽ നേരത്തെയൊക്കെ ടെസ്റ്റുകളിലൂടെ മാത്രമായിരുന്നു നമുക്ക് അവൈലബിൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധ്യമാവുന്നുണ്ട് ഒരാളുടെ അറിവ് മാത്രമല്ല പലരുടേയും അറിവുകളും പലരുടേയും അനുഭവങ്ങളുമൊക്കെ ഷെയർ ചെയ്ത് കിട്ടപ്പെടുകയും ആ ഷെയർ ചെയ്യുന്നതിലൂടെ കൂടുതലായിട്ട് ഈശോയിലേക്ക് അടുക്കാനുമൊക്കെ സാധ്യമാവുന്നുണ്ട് ഈശോയോട് ചേർന്നൊരു ജീവിതം നയിക്കുവാൻ ഒത്തിരി അധികം വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി മഹത്വ്യക്തികളെ പോലും സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഈ മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തനിക്കുണ്ടാകാമായിരുന്ന അല്ലെങ്കിൽ തൻ്റെ ആയിരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും മാറി തനി മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു മനുഷ്യ കുലത്തിൻ്റെ രക്ഷക്കായിട്ട് ആണ് അവൻ വന്നത് എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കുകയും വലിയ ഒരു ആകർഷണമായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ചെറുപ്പത്തിൻ്റെ ഒരു യുവത്വത്തിൻ്റെ ഒരു ആകർഷ്ണത എല്ലാവരേയും അവനിലേക്ക് അടുപ്പിക്കാൻ അവന് സാധ്യമാവുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു പുതുമയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ പഠിപ്പിക്കൽ അധികാരികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് ഒക്കെ എന്ന് പറയുന്നത് അത് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം ഈശോ പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ ഒരു ആധികാരികതയോടു കൂടെയാണ് പറഞ്ഞത് കാരണം സ്വന്തം അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ നല്ല ബോധ്യമുള്ള ഒരു ടീച്ചർ എന്ന കാര്യം പിന്നെ എല്ലാ പഠനങ്ങളും എന്ന് പറയുന്നത് സാഹചര്യങ്ങളോട് അനുബന്ധിച്ചുള്ള ഉദാഹരണങ്ങിലൂടെ ഉപമകളിലൂടേയും സംഭവങ്ങിലൂടെയുമൊക്കെയാണ് പഠനങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടു തന്നെ കൂടുതൽ വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു പഠിപ്പീരായിരുന്നു പഠിപ്പീരിൻ്റെയൊക്കെ അവസാനം വെറും പറഞ്ഞൂ കടന്നു പോകുന്ന ഒരു ആത്മീയ ഗുരു മാത്രമായിരുന്നില്ല ഈശോ മറിച്ച് അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കാലിൽ വീഴുന്നതിൻ്റെയൊക്കെ ഒരു അനുഭവം അത് ക്ഷമിക്കുന്നതിൻ്റെ അനുഭവം അത് അതൊക്കെ ഒത്തിരി അധികമായിട്ട് സ്വാധീനിക്കുന്ന ഒരു മേഖലകളൊക്കെയാണ് ആത്മീയ ഗുരുവായ യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ യേശുവോട് ചേർന്നു ജീവിക്കുവാൻ യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആവുന്നിടത്തോളം യേശുവിനെ കുറിച്ച് വായിക്കുവാൻ മറ്റുള്ളവരിലേക്കൊക്കെ പകർന്ന് കൊടുക്കുവാൻ എഴുതാനും വായിക്കാനും ഒക്കെ സാധ്യമാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ എ ഐ പോലുള്ള പുതിയ സംവിധാനങ്ങളിലൂടെയൊക്കെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനൊക്കെ ഒത്തിരി അധികം സാധ്യതകളുള്ള ഒരു ലോകത്തിലാണ് ലോകമെല്ലാം ഒരു വിരൽത്തുമ്പിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആത്മീയ ഗുരു ആയ ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടുന്ന ഒരു ചൈതന്യം പ്രാപിക്കാൻ വേണ്ടി കൂടുതൽ വചനം വായിക്കാനും വചനം പഠിക്കാനും വചനത്തോട് ചേർന്നു ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു